അപ്പോൾ ഞാൻ എങ്ങനെ ക്ലൈമ്പിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ടും എന്താ പറയുക അങ്ങനെ പോയിട്ടില്ല പിന്നെ ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ടും ഞമ്മള് ഞാൻ പറഞ്ഞല്ലോ വയനാട് പോലുള്ള സ്ഥലത്തേക്കാണ് ഞമ്മള് കൂടുതലായിട്ടും ട്രക്കിംഗ് ഒക്കെ പോകാറുള്ളത് വയനാട് മേപ്പാടി പിന്നെ എന്താ പറയുക അമ്പലവയൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ കൂടുതലും പോയിരിക്കുന്നത് പിന്നെ മുട്ടിലെ മാണ്ടാടാ അവിടെ അങ്ങനെയുള്ള ഏരിയകളിൽ ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ട്രാക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളത് അവിടേക്ക് പോയിട്ട് എനിക്ക് നല്ല അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കൂടുതലും എന്താ പറയുക അവിടെയൊക്കെ പോയി മലേൻ്റെ മുകളിലൊക്കെ കയറി അവിടെ നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കാണാനെനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു നല്ല അനുഭവമായിട്ടാണ് ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതൊക്കെ ഇപ്പോഴും റിയലി മിസ്സ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇനിയും നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ തന്നെയാണ് തോന്നുന്നത് കാരണം കണ്ടു കഴിഞ്ഞാലും നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത ഓരോ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ കൂടുതലും നമുക്ക് ആ സ്പോട്ടുകളൊക്കെ എന്താ പറയുക റിയലി നമുക്ക് മനസ്സിൽ നിന്ന് പോകാത്ത സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെയാണ് എനിക്ക് ഇപ്പോഴും പോകാനായിട്ട് ഒക്കെ തോന്നുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത്